ഞാൻ പരമൽക്ക് നിന്നാണ് എനിക്ക് എൻ്റെ രണ്ട് മക്കളുടെ സ്കൂളിലൊന്ന് ചേർക്കണം എൽ കെ ജിയും രണ്ടാം ക്ലാസും ആ കൺഫേം ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചെല്ലാം അറിഞ്ഞതിന് ശേഷം ചേർക്കാന്ന് കരുതി നാളെ കുട്ടീനെ കൂട്ടി വരാന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പതിനായിരം രൂപയാ ഒരു കുട്ടിക്ക്

പനി പനമരം ഹലോ ഹലോ പനമരത്ത് ഹലോ അപ്പോൾ ഈ യൂണിഫോം യു കുട്ടിക്കുള്ള യൂണിഫോമോ ഓക്കെ മാം നാളെ തന്നെ കുട്ടീനേം കൊണ്ട് വരാം കേട്ടോ